എൻ്റെ ചെറുപ്പത്തിലെ റേഡിയോ വാർത്തകളാണ് നമ്മൾ വീട്ടിൽ കേട്ടുകൊണ്ടിരുന്നത് ഞങ്ങളെല്ലാവർക്കും അന്ന് ഒരു പത്തോ എഴുപത്തഞ്ച് രൂപ നൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റേഡിയോ അതിൻ്റെ ചുറ്റും ഞങ്ങളിരുന്ന് വാർത്തകൾ കേൾക്കും വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അന്ന് കവിത വാർത്ത കേൾക്കുവായിരുന്നു കൃഷിപാഠങ്ങൾ കേൾക്കുമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങൾ കേൾക്കാൻ റേഡിയോ അല്ലാതെ വേറെ മാർഗ്ഗങ്ങളില്ല അതുകൊണ്ടാണ് കാലത്ത് റേഡിയോയെ ആശ്രയിച്ച് ഞങ്ങളിങ്ങ് പോന്നു അപ്പോൾ നമ്മള് രാവിലെ നമ്മള് സ്കൂളിൽ പോകുന്നതിന് മുൻപ് ചെല്ലുമ്പോൾ നമ്മള് ആറ് മണിയാകുമ്പോൾ നമ്മള് വാർത്ത കേൾക്കും അതിൻ്റെ അകത്തെ ചലച്ചിത്ര ഗാനങ്ങള് കേൾക്കാറുണ്ട് അതിൻ്റെ അകത്ത് നമ്മള് നാടകങ്ങൾ പോലും നമ്മള് അതിൻ്റെ അകത്തൊക്കെ ശബ്ദ രേഖയായിട്ട് കേൾക്കാറുണ്ട് പക്ഷെ നാടകം കാണുന്നില്ല ആ ഒരു കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ റേഡിയോ കഴിഞ്ഞപ്പഴാണ് സ്റ്റീരിയോ സിസ്റ്റങ്ങള് വരുന്നത് പാട്ടുകൾ കേൾക്കാൻ പറ്റുന്ന അന്ന് കാസറ്റൊക്കെ ഇട്ട് നമ്മള് പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു

എത്രയോ ചാനലുകളുണ്ട് പത്തും എണ്ണൂറും ചാനലുകളുണ്ട് അതിൻ്റെ അകത്ത് നമ്മള് കാണുന്നത് എട്ടോ പത്തോ ചാനലുകള് മാത്രമാണ് നമ്മള് കാണുന്നത് അതിൻ്റെ അകത്ത് എന്നാൽ ടി വി വന്നപ്പം നല്ല വാർത്തകൾ കണ്ണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം ഇപ്പോൾ പിടീന്ന് നമ്മൾടൊരു അപകടങ്ങൾ ഉണ്ടായി അത് എവിടെ നടന്നു ഏത് സ്പോട്ടിൽ നടന്നു നമ്മുടൊരാളെ കാണാതെ പോയി അത് നമുക്ക് ആ ആ ആളെവിടെയാണ് എന്താണന്ന് നമുക്കപ്പയറിയാൻ പറ്റുന്ന ഫോൺ പോലെ തന്നെ ടിവിയിൽ നമ്മള് കാണുന്നു ഏത് വാർത്തകളാണങ്കിൽ ചില വാർത്തകള് നന്നായിട്ട് ചാനലുകാര് പറയുന്നതിൻ്റെ പേരില് ചില നല്ല സത്യങ്ങളും വരുന്നുണ്ട് എന്നാൽ ചിലപ്പോൾ നമ്മൾക്ക് സത്യമല്ലാത്ത ചില വാർത്തകളും ഇട്ട് ഈ ടിവിയിലിങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നു നമ്മൾക്ക് ഇപ്പോൾ ടിവീടൊര് ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈ കോവിഡ് കാലത്ത് നം ഞാൻ കണ്ടത് ഏറ്റവും കൂടുതല് ആൾക്കാര് പള്ളിയിൽ പോവാത്ത അവസരങ്ങളിൽ വീട്ടിലിരുന്ന് കുർബാന കാണുന്നു അവർക്കെല്ലാം വളരെ സന്തോഷം പള്ളിയിൽ പോയില്ലേലും കുർബാന കാണാൻ പറ്റുന്നു ഈ ന ഇവിടെ നടന്ന് കോവിഡ് കാലത്ത് നടന്ന വിഷയങ്ങളെല്ലാം നമുക്ക് വീട്ടിലിരുന്ന് കാണാൻ പറ്റുന്നുണ്ട് കാണാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ നമുക്ക് ടി വി

മൊബൈൽ ഫോണിലേക്ക് വന്നപ്പത്തും ടിവിയുടെ ഒരു പ്രശ്നം തല്ലിക്കൊണ്ടിപ്പം എവിടെ ഇരുന്നാലും ഞങ്ങള് മൊബൈലിലാണിപ്പം സിനിമ കാണുന്നതും പാട്ട് കേൾക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം ആയി ചാനലുകള് നല്ലതാണ് ചാനല് എല്ലാവരും ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ല സിനിമകളൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അത് കുട്ടികളിലേക്ക് മാറിയപ്പോൾ ടി വി എന്ന് പറയുന്നത് പയ്യേ പുറകോട്ട് മാറുകയും വീണ്ടും നമ്മളൊക്കെ കാണുന്നത് എല്ലാവരും ഫോണിലേക്ക് മാറുകയാണ് ഫോണാണ് എല്ലാവരും കുട്ടികൾക്ക് പഠിക്കാനുപയോഗിക്കുന്ന തൊട്ട് ഏത് കാര്യത്തിനും ഉപയോഗിക്കുന്നത് ഫോണുകളാണ് എന്നാൽ നമ്മുടെ പണ്ടത്തെ റേഡിയോ വാർത്തകളിന്നും നമ്മുടെ കാതിൽ കേൾക്കുന്നത് അന്നത്തെ നല്ല വാർത്തകള് കേൾക്കുന്നതാണ് അത് ഇപ്പോൾ ഇല്ലാതെ പോയി ഇപ്പം റേഡിയോയുടെ കാലം കഴിഞ്ഞു അതിന് ശേഷം ടിവിയും മൊബൈലും അങ്ങനെ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ നാട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതാണ്